ഹായ് ഓക്കെ എന്താണ് വേണ്ടത് ശരിക്കും സ്ഥലം എവിടെയായിരുന്നു ആ ഓക്കെ എന്ത് പ്രോഗ്രാമാണ് എത്ര പേർക്കാണ് വേണ്ടതെന്നൊന്ന് പറയാമോ ഓക്കേ ആ ഓക്കെ

ഓക്കെ അപ്പോള് അഞ്ഞൂറ് ചായ ഓക്കെ ഇപ്പോള് ഇവിടെ ചായ ആണെങ്കില് ബ്ലാക്ക് ടീയുണ്ട് കോൾഡ് കോഫിയുണ്ട് ബൂസ്റ്റുണ്ട് അങ്ങനെ കുറെ ഐറ്റംസുണ്ട് അപ്പോള് നിങ്ങള്ക്ക് നോർമലായിട്ടുള്ള പാൽച്ചായ മതിയല്ലോ ഓക്കെ അപ്പോള് ഒരു നാന്നൂറ് ചായ അഞ്ഞൂറെണ്ണം ഓക്കെ പിന്നെ ഇവിടെ സ്നാക്സായിട്ട് പിസ്സയുണ്ട് ബിസ്കറ്റുണ്ട് അങ്ങനെ കുറെ ഐറ്റംസുണ്ട് അപ്പോള് നിങ്ങള്ക്ക് എന്താണ് വേണ്ടത് മറ്റ് ഓയിലി ഐറ്റംസാണോ ചെറുകടി അങ്ങനത്തെയാണോ അതോ ബിസ്കറ്റ് അങ്ങനത്തെ ഐറ്റമാണോ വേണ്ടത്

ഇപ്പോള് ചെറുകടിയാണെങ്കില് രാവിലെ ഇവിടെയുണ്ടാക്കിയാണ് നമ്മളങ്ങോട്ട് ഇത് ചെയ്യുകയാണെങ്കില് നമ്മളുണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോള് നിങ്ങള് ചെറുകടിയാണെങ്കില് ഇവിടെ മറ്റേ വടയുണ്ട് ബോളിയുണ്ട് അങ്ങനത്തെ കുറെ ഐറ്റംസുണ്ട് സോ നിങ്ങള്ക്കെന്താണ് വേണ്ടതെന്ന് പറഞ്ഞാല് അത് നമ്മളുണ്ടാക്കിത്തരാം ഇരുപത്തിനാലാം തീയതിയാകുമ്പോള് അപ്പോള് അഞ്ഞൂറ് ചായ അപ്പോള് അതുപോലെതന്നെയായിരിക്കുമല്ലോ ചെറുകടിയും അഞ്ഞൂറ് ഓക്കെ ചെറുകടി എന്താണ് വേണ്ടത് വടയോ പരിപ്പുവട അങ്ങനെ കുറെ ഐറ്റംസില് ഇപ്പോള് മെയിൻലി നമ്മളിവിടെ കടയിലിടുന്നത് പരിപ്പുവട പിന്നെ സവോള വട പിന്നെ ബോളി അങ്ങനത്തെ സാധനങ്ങളാണ് മിക്സ്ഡ് പാക്കെന്ന് വരുമ്പോള് ചെറുകടിയാണോ അതോ മ്മ് ആ ഓക്കെ അപ്പോള് ഞാൻ പറയാം ഇപ്പോള് ഒരു ഒരു പ്ലേറ്റാണെങ്കില് ഒരു ഉഴുന്നുവട ഒരു പരിപ്പുവട പിന്നെ ഒരു പഴംപൊരി പിന്നെ അല്ലാതെ സാധാരണ ബോളി പിന്നെ വേറെ ഏതെങ്കിലമൊരു ഐറ്റം സ്വീറ്റ് ഐറ്റം ആ അഞ്ഞൂറെണ്ണം അപ്പോള് ഒരു പ്ലേറ്റില് ഇത്രയും സാധനം വെച്ചിട്ട് അഞ്ഞൂറ് ആ ആ ഓക്കെ അപ്പോള് ഇരുപത്തിനാലാം തീയതിക്ക് അഞ്ഞൂറ് ചായയും അഞ്ഞൂറ് ചെറുകടി പ്ലേറ്റ്സും ഓക്കെ ഏകദേശമെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോള് നമ്മളെല്ലാം കൂടി വരുമ്പോള് ഇതിന് ഡെലിവറി ചാർജ്ജും കൂടിയുണ്ട് നമ്മള് അങ്ങോട്ട് വന്നുതരുന്നതുകൊണ്ട് ഇവിടെ രാവിലെ സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മളാണ് അങ്ങോട്ട് വന്നുതരുന്നത് അപ്പോള് എല്ലാം ഡെലിവറി ചാർജ് എല്ലാം കൂട്ടി ചേർക്കുമ്പോള് മിനിമം ഒരു ടൂ തൗസൻ്റ് അല്ലെങ്കില് ടൂ തൗസൻ്റ് ഫൈവ് ഹണ്ഡ്രഡില് കൂടുമായിരിക്കും ആ ആ മിനിമം പോയാല് ഒരു ത്രീ തൗസൻ്റ് ത്രീ തൗസൻ്റ് ത്രീ തൗസൻ്റ് വരില്ല എന്നാൽ അതിലും കുറവായിരിക്കും എന്നുവെച്ച് ഇപ്പോള് എല്ലാ സാധനവും നമ്മള് പുറത്തുനിന്ന് മേടിച്ച് നമ്മളുണ്ടാക്കുന്നതുകൊണ്ട് എല്ലാത്തിനും കുറച്ച് എക്സ്പെൻസീവ് ആകും അതുകൊണ്ടാണ് ആ ഓക്കെ ആ അവിടെ ഞങ്ങൾ കൊണ്ടുവന്നെത്തിച്ചുകൊള്ളാം ഇരുപത്തിനാലാം തീയതി എപ്പോഴത്തേക്കാണ് വേണ്ടത് ഒരു പത്ത് മണി കഴിഞ്ഞിട്ട് പോരെ ആ എന്നാല് ഓക്കെ താങ്ക് യൂ